ബൈക്ക് ഓടിക്കുമ്പോള് പ്രധാനപ്പെട്ട പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹെൽമറ്റ് ഹെൽമറ്റ് ധരിക്കും പിന്നെ വണ്ടിയുടെ പേപ്പറുകള് സി സി ആർ സി ബുക്ക് ഇൻഷുറൻസിന്റേത് ലൈസൻസ് മറ്റെല്ലാം കയ്യില് കരുതും എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോള് എടുക്കാനോ മറ്റ് കാര്യങ്ങള്ക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോള് പിന്നെ വണ്ടിയുടെ പേപ്പറുകള് വണ്ടിക്ക് പുക ചെക്ക് ചെയ്തത് വണ്ടിയുടെ എല്ലാ എല്ലാ കാര്യങ്ങളും എടുക്കുന്നതാണ് പിന്നെ പ്രത്യേകിച്ചിട്ട് എവിടെപ്പോയാലും ഹെൽമെറ്റ് ധരിക്കാറുണ്ട് പിന്നെ ഈ സൈക്കിളോടിക്കുന്ന സമയത്ത് കയ്യുറ ദൂരെ യാത്ര പോവുകയാണെങ്കില് കയ്യുറ ധരിക്കും അതിനനുസരിച്ചിട്ടുള്ള എല്ലാ മുൻകരുതലുകളും ഓടിക്കുന്ന സമയത്ത് കയ്യിൻ്റെയുള്ളില് തഴമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകള് അതൊക്കെ എടുത്തിട്ടാണ് പോവുക പിന്നെ വണ്ടിയുടെ ഉള്ളിലായിട്ടൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെയ്ക്കും പിന്നെ മഴക്കോട്ട് മറ്റെല്ലാ സാധനങ്ങളും വണ്ടിയുടെയുള്ളില് എന്നും വെച്ചേക്കും അതിനൊക്കെ എപ്പോഴാണ് ആവശ്യം വരികയെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടതൊക്കെ റെഡിയാക്കി വെയ്ക്കും പിന്നെ ബൈക്ക് ബൈക്ക് ഓടിച്ചുതുടങ്ങിയാല് ബൈക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നേരെ നോക്കും മറ്റ് വാഹനങ്ങളുമായിട്ട് മുട്ടാതെ റോഡിലെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് റോഡ് നിയമങ്ങളൊക്കെ പാലിച്ച് ഓടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും